ചെറുപ്പത്തില് നാട്ടിന്പുറങ്ങളില് ഉണ്ടായിരുന്ന ഒരു കളിയാണ് കുളി കുഴിപ്പന്ത് കളി ഒരു പന്ത് ഉണ്ടാക്കി അതായത് പിന്നെ അത് പലയിടത്തും പല ഈ രീതിയാണ് ചിലയിടത്ത് കരിയിലകൊണ്ട് വാഴക്കരിയില കച്ചി കൊണ്ട് കെട്ടിയുണ്ടാക്കും ഉണ്ടാക്കിയിട്ട് ഒരു ഒരു പോയിന്റില് നിന്നുകൊണ്ട് ദൂരെ നിന്ന് അടിച്ച് അവിടെ നിന്നുകൊണ്ടൊരു ബാറ്റ് വെച്ച് അടിക്കുക ഇതേ ദൂരം നിന്നെറിയുക എറിഞ്ഞിട്ടതിനിത്ര അകലത്തില് നിന്നേ എറിയാവുകയുള്ളുവെന്ന് നിയമം ഉണ്ട് അത് പിന്നെ അടി കൊണ്ടില്ലെങ്കിലതിന് സ്കോറുണ്ട് അങ്ങനെയൊരു കളിയായിരുന്നു ഈ കുഴിപ്പന്ത് കളി അതുപോലെ കിളിത്തട്ട് കളി കിളിത്തട്ട് കളിയെന്ന് പറയുമ്പോൾ പിന്നെ ഒരു ചതുര ദീര്ഘചതുരം പോലെയുള്ള കളം അതിന് നടക്കുകൂടെയൊരു വര ആ ആ വരയില് കൂടെ ഈ ചുറ്റിലും ഈ നടുക്കത്തെ വരയിലും കൂടെ സഞ്ചരിച്ച് ആളുകളെ അടി ഇത് തൊട്ട് അടിച്ചില്ലെങ്കിൽ തൊട്ട് പുറത്താക്കാനുള്ള അധികാരം കിളിക്കുണ്ട് അല്ലാത്തിടത്ത് ഈ ഓരോ ലൈനിലും തട്ട് കാക്കാനും ഓരോ ഓരോരുത്തരുണ്ട് നാല് തട്ടുള്ളതാണെങ്കില് അഞ്ച് പേർ കളിക്കാരായിട്ട് കാണും ഇവർ കയറ്റം അടിക്കുകയെന്ന് പറയും ആദ്യം കിളി കൈകൊട്ടി കയറ്റം അടിച്ച് കഴിയുമ്പോഴത്തേന് മുകളിൽ നിന്നോരോരുത്തരോരുത്തർ ഇറങ്ങും ഇറങ്ങി വരും മറ്റൊരൊളിനെ വെട്ടിച്ച് വെട്ടിച്ച് എങ്ങനെയെങ്കിലും പിന്നെ അടുത്ത കളത്തില് ചാടും അതിനിടയ്ക്ക് കിളി നടുക്കത്തെ വരയിലൂടെയോ ചുറ്റിലുമുള്ള വരയിലൂടെയോ വന്ന് തൊടു തൊടുകയോ അടിക്കുകയോ ചെയ്താല് ആ ആൾ പുറത്ത് പോകണം അങ്ങനെ പിന്നെ ഈ കിളി കിളി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുകൂടി വരുന്ന വന്ന് താഴെയിറങ്ങിയിട്ട് വീണ്ടും തിരിച്ച് അങ്ങ് തുടങ്ങിയയിടത്ത് ചെല്ലുമ്പോഴാണ് ഒരുപ്പ് ഉപ്പ് വെയ്ക്കുകയെന്നാണ് പറയുന്നത് അന്ന് തോൽക്കുന്നതിനൊരുപ്പ് വെയ്ക്കുകയെന്നാണ് പറയുന്നത് എത്ര ഉപ്പ് വെച്ചെന്ന് ചോദിച്ചാൽ എത്ര പ്രാവശ്യം അവരെ തോൽപ്പിച്ചു എന്നുള്ളതാണതിനകത്ത് അര്ത്ഥമാക്കുന്നത് ഇതാരുയിന്നു പണ്ടത്തെ ഈ കിളിത്തട്ട് കളി അതിപ്പോൾ തീരെ നിന്നുപോയി ഇപ്പം എങ്ങും ആരും കളിക്കുന്നതായിട്ട് കാണുന്നില്ല പിന്നെ അതുപോലെ ഈ വട്ടം കൂടിയുള്ള ഈ ഈ പിന്നെ ഈ ഈ ഓണത്തിന് ഒക്കെ കളിക്കുന്ന ഒരു കളിയുണ്ട് പശുവും പുലിയും കളി ഒരു പശു വാറ്റ് വട്ടം ആളുകൾ വലയായിട്ട് നിൽക്കും എന്നിട്ട് പശുവിനെ പിടിക്കാനായിട്ടൊരു പുലി വരും പുലി വരുമ്പം ആളുകളെല്ലാം ഈ പുലിയെ തടയാനായിട്ടും പശുവിനെ ഇറക്കി വിടാനായിട്ടും നോക്കും പശുവേ പശുവേ പുല്ലിന്നാ പുലിയെ പുലിയെ തല്ലിന്നാ എന്നങ്ങനെയാ പറയുന്നത് അപ്പം പശു വരുമ്പോഴത്തേന് എല്ലാവരും ഈ നെറ്റ് തുറന്നുകൊടുക്കും അതിനകത്ത് കയറും പുലി വരുമ്പോഴത്തേനുമിതടയ്ക്കും എങ്ങനെയെങ്കിലും ഇതിന്റെ വട്ടം ഓടിപ്പിടിച്ച് ഈ പുലി പശുവിനെ പിടിയ്ക്കുക എന്നുള്ളതാണതിന്റെ ജയമായിട്ട് കണക്കാക്കിയിരിക്കുന്നത് അങ്ങനെയുള്ളത് നേരം അപ്പം അതിനകത്ത് പല ചൊല്ലുകളുണ്ട് പശുവേ പശുവേ പുല്ലിന്നാ പുലിയെ പുലിയെ കല്ലിന്നാ അങ്ങനെയൊ ഒത്തിരി കാര്യങ്ങളതിന്റെ കൂടെയിങ്ങനെ ഈ നാട്ടുംപുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെയങ്ങ് പറയും അത് എല്ലാവരും കൂടെ ഏറ്റുചൊല്ലും ഒരു വലിയ സന്തോഷമായിട്ടാണും പെണ്ണും എല്ലാം കൂടെ കൂടി വട്ടം വലിയ എന്നാ വലയായിട്ട് പത്ത് അമ്പതും നൂറും പേരും ഒക്കെ ഇങ്ങനെ വലിയ വല കാണും അതിനകത്തൊരു പശു ഒരു പുലിയേ കാണുകയുള്ളു അങ്ങനെ അങ്ങനെയൊരു കളി നേരത്തെ നിലനിന്നിരുന്നു അതിൽനിന്നൊക്കെ ഇപ്പോള് വളരെ വളരെ കുറഞ്ഞ് അസ്തമിച്ചുപോയി കാരണം ഇന്ന് ഇതറിയാവുന്ന ആളുകൾ ഒക്കെ പിന്നെ അതില്നിന്നങ്ങ് വിമുഖരായി അതിനുള്ള സാഹചര്യം ഇല്ല ഇപ്പം എല്ലാവരും സിനിമയും ഇന്റെര്നെറ്റും മറ്റ് കാര്യങ്ങളിലേക്ക് തിരിഞ്ഞുപോയതുകൊണ്ട് ആ വക കാര്യങ്ങളെല്ലാം അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിലും ചില സ്ഥലങ്ങളിലിപ്പോഴും ചില ആളുകള്ക്കതിലിപ്പോഴും ഇന്ട്രസ്റ്റുണ്ട് എന്ത് അതാണിപ്പം ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം